അപ്പോൾ കാലത്ത് മലയാളഭാഷ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് അപ്പോൾ നമ്മള് പറയുകയാണെങ്കിൽത്തന്നെ ഇന്നത്തെ സമൂഹത്തിലുള്ളവരൊക്കെ കൂടുതലെന്താ പറയുക ഇംഗ്ലീഷ് പോലുള്ള ലാഗ്വേജിൻ്റെ പുറകെയാണ് കാരണം ഇംഗ്ലീഷ് ജർമ്മൻ അങ്ങനത്തെ ഒരുപാട് ലാഗ്വേജുകള് പഠിച്ച് എല്ലാരും പുറത്തേക്ക് പോയി അവിടെ ജോലി ചെയ്ത് സെറ്റിൽ ആവാനാണ് ശ്രമിക്കുന്നത് സൊ ഇന്നിപ്പോൾ മലയാളഭാഷക്ക് വല്യ പ്രാധാന്യം ഒന്നും ആരും തന്നെ കൊടുക്കാറില്ല കാരണം മലയാള ഭാഷേനെ താഴ്ത്തിക്കെട്ടി മറ്റു ഭാഷകളെ പഠിച്ച് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനാണ് കൂടുതലാൾക്കാരും ശ്രമിക്കുന്നത് സോ അതുകൊണ്ട് നമുക്കെന്താ പറയുക മലയാള ഭാഷയുടെ പ്രസക്തി ഇപ്പോൾ ഇവിടെ ആരും മനസിലാക്കുന്നില്ല കാരണം മലയാളഭാഷ ഓൾമോസ്റ്റ് ജനിച്ചുവീഴുന്ന കുഞ്ഞുകുട്ടികളെ പഠിപ്പിക്കുന്നപോലെ കുറച്ച് നാള് മാത്രം പഠിച്ചതിനു ശേഷം വല്യ വല്യ എന്താ പറയുക ഇപ്പോൾ ജർമൻ ലാഗ്വേജുകളും ഇംഗ്ലീഷ് പോലുള്ള അത്യാവശ്യം നല്ല നല്ല ലാഗ്വേജുകളൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികള് ഡയറക്റ്റ് എന്താ ചെയ്യുക പുറത്തേക്കൊക്കെ വിടുകയാണ് പിന്നെ അവിടെപ്പോയി പഠിച്ച് അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് അവിടെ ജീവിക്കാനാണ് കൂടുതലാൾക്കാരും കുട്ടികളോടൊക്കെ ഇതാക്കുന്നത് അപ്പോൾ നമ്മുടെ മലയാള ഭാഷേൻ്റെ പ്രാധാന്യം ഇപ്പോൾ ആരും മനസിലാക്കുന്നില്ല